പണ്ട് തൊട്ടേ റേഡിയോയിൽ വാർത്തകൾ കേൾക്കാൻ എനിക്ക് വ വളരെ ഇഷ്ടമാണ് പണ്ട് തൊട്ടേ എൻ്റെ കുഞ്ഞുന്നാൾ മുതൽ തന്നെ എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ട് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഉണ്ടായിരുന്നു റേഡിയോ അപ്പം ഞാനെന്റെ കുഞ്ഞുന്നാൾ മുതലേ റേഡിയോ ഇങ്ങനെ കേക്ക് കേൾക്കാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എഫ് എം ഒക്കെ എഫ് എം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എഫ് എം ഉള്ളതൊക്കെ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു അപ്പേ എഫ് എമ്മിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ സ്പോർട്സ് പരമായുള്ള വാർത്തകളാണ് എനിക്ക് ചെയ്യാൻ എനിക്ക് കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് സ്പോർട്ട്സെന്നൊക്കെ പറയുകയാണെ ഫുട്ബോൾ അപ്പം ഫുട്ബോൾ പരമായുള്ള വാർത്തകളൊക്കെ എനിക്കിങ്ങനെ കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഫുട്ബോൾ അപ്പോൾ എഫ് എമ്മീ കേൾക്കുമ്പോൾ എനിക്ക് എപ്പോളൊരു പുതിയതായിട്ടൊരു എനർജെറ്റിക് അങ്ങനെ ഒരു പുതിയ ഒരിതു മാതിരിയാണ് എനിക്ക് എഫ് എം ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളത് എഫ് എമ്മി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റേഡിയോ പല ടൈപ്പുണ്ട് ഒരെണ്ണം ചിലത് കാറിലുള്ള റേഡിയോ ഉണ്ട് ചിലത് നമ്മൾ ഇപ്പം റേഡിയോ രൂപത്തിലുള്ള അതായത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള റേഡിയോ ഉണ്ട് ചിലത് നമ്മുടെ ഫോണിലും ഫോണിൽ ഇൻസ്റ്റാളായിട്ടുള്ള റേഡിയോയുണ്ട് ചിലത് നമുക്ക് കാറിലുള്ള റേഡിയോ ആണ് അപ്പം പല ടൈപ്പ് റേഡിയോയാണ് ഉള്ളത് ഇപ്പം റേഡിയോയിലത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു സറൗണ്ടിങ്ങ്സിലുള്ള ഉള്ള കപ്പാസിറ്റി ഉള്ള റേഡിയോയിലാണ് വാർത്തകളൊക്കെ ഉള്ളത് അപ്പം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പല ടൈപ്പ് വാർത്തകളൊക്കെ ഇപ്പോഴുമുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സിനിമാ വാർത്തകൾ സിനിമ സീരിയൽ സിനിമാ സീരിയൽ സ്പോർട്സ് എല്ലാ പരമായുള്ള വാർത്തകൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ചാനലിൽ ക്ലബ് എഫ് എം മാങ്കോ റേഡിയോ മംഗോ ഇങ്ങനത്തെയൊക്കെ എഫ് എം മാംഗോ വ വളരെ ഇഷ്ടമാണ് അപ്പം ഈ റേഡിയോയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം റേഡിയോ ഇപ്പോൾ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റേഡിയോ ഇപ്പം ന്യൂസൊക്കെ നമുക്കിപ്പോൾ ഫോണൊക്കെ വന്നപ്പോൾ ഫോണിലൊക്കെ വെച്ചാൽ മതി അപ്പം ഈ റേഡിയോയൊക്കെ വന്നപ്പോൾ നമുക്ക് റേഡിയോയിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ അപ്പം നമുക്കാ ഒരു പഴയ പഴയ രീതിയിലുള്ളതായിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് കേൾക്കാനൊക്കെ പറ്റും ഇനി ഇനി ഞാനും എൻ്റെ വീട്ടുകാരും എപ്പോഴും റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേട്ടു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഞാൻ എവിടെ പോയാലും ഈ റേഡിയോ ഇപ്പം നമുക്ക് കാറിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോ പ്ലേ ചെയ്യുക റേഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും ഇത് റേഡിയോ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് പല ടൈപ്പ് പല വാർത്തകൾ പല രീതിയിലുള്ള വാർത്തകൾ നമുക്കറിയാം നമുക്കെപ്പോഴും എപ്പോഴും റേഡിയോ എന്നൊക്കെ പറയുമ്പം എന്താ പറയുക വാർത്തകളത് ഇതെല്ലാം നമുക്കിഷ്ടമുള്ള കോളര് ട്യൂണിടാന് ഇഷ്ടമുള്ള വാർത്തകൾ ഇഷ്ടമുള്ള സ്പോർട്സ് നമുക്കിപ്പം വാര് റേഡിയോ മാംഗോ പോലെയുള്ള ജോക്കി പരമായിട്ടുള്ള ഇതിലൊക്കെ മിണ്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാർത്തകൾ പല ടൈപ്പിൽ നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കാവുന്നതാണ് പിന്നെ റേഡിയോ പറ്റി പറയുവാനെന്താ ഇപ്പം ഫിസിക്കൽ റേഡിയോയാണേ ആ ഒരു പഴയ കാല വൈബ് തന്നെ റേഡിയോ ഒക്കെ കൊണ്ട് വരും പഴയ കാല റേഡിയോ അപ്പം ആ ഒരു പഴയ വൈബെന്നൊക്കെ പറയുകയാണ് അതൊരു നല്ലൊരു കാര്യമാണ് അപ്പം ആ റേഡിയോയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ തൂക്കി പിടിച്ചു കൊണ്ട് നടക്കാനുള്ളൊരു ഒരു സംഭവമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇപ്പോഴും അതാ പഴയ കാല വൈബ് കൊണ്ടു വരാൻ എപ്പോഴും റേഡിയോകൾ ഭയങ്കര ഭയങ്കര സഹായിച്ചിട്ടുണ്ട് പിന്നെ റേഡിയോയെ പറ്റി പറയുകയാണേ റേഡിയോ നമുക്ക് എല്ലാ കൂടുതലും ഇപ്പം കണ്ടു വരുന്നത് ഇപ്പം ഇപ്പോൾ ആ ഒരു പുതിയ ജനറേഷനിലെ ആൾക്കാര് റേഡിയോ അങ്ങനെ ഉപയോഗിക്കണെ നമ്മള് കണ്ടിട്ടില്ല അപ്പ നമ്മളെപ്പളും എന്താണ് പഴയ ആൾക്കാര് അതായത് നമ്മട അപ്പൂപ്പന് അമ്മൂമ്മന്മാരായിരിക്കും ഇപ്പ റേഡിയോ ഒക്കെ ഉപയോഗിക്കണത് ആ റേഡിയോ ഉപയോഗിക്കുന്നവർ തന്നെ അവരുടെ വീട് എന്നു പറഞ്ഞാൽ അവർക്ക് എട്ക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും റേഡിയോ ഒക്കെ വെക്കണേ എന്നിട്ട് നമ്മളത് റേഡിയോക്കെ ഇപ്പര അവരുടെ ഒഴിവു സമയങ്ങളില് കേൾക്കാനൊക്കെയാണ് റേഡിയോക്കെ വെക്കണെ അപ്പ റേഡിയോ വെക്കുമ്പോൾ തന്നെ പ്രായമുള്ളവര് കൂടുതലും കേൾക്കുന്നത് ഇതുപരമായ എന്താണ് ഈ വാർത്തകളൊക്കെയാണ് നമ്മുടെ ന നമ്മുടെ പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ അത് റേഡിയോ ഒക്കെ നമ്മൾ ഫോൺ ഫോണിൽ കാറിലക് കാറിലാണ് ഏറ്റവും കൂടുതൽ റേഡിയോ കണ്ട് വരുന്നത് അപ്പം കാറിലൊക്കെ വെക്കുമ്പം എന്ന ക്ലബ് എഫ് എം റേഡിയോ മാംഗോ അങ്ങനെ പല ടൈപ്പ് റേഡിയോ ഉണ്ട് എഫ് എം റേഡിയോയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മൾ കാറിലൊക്കെ പോകുമ്പോളെന്നു പറഞ്ഞാൽ എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ റേഡിയോയൊക്കെ കാണും പുതിയ പുതിയ വാർത്തകൾ പിന്നെ നമ്മുടെ ആ പരിസരത്ത് അതായത് ആ ഒരു കപ്പാസിറ്റിയിലുള്ള അതായത് റേഡിയോ സിഗ്നൽ അത് ഏത് ചാനലിലാണോ ആ ചാനലിലുള്ള റേഡിയോസൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ സ്ഥിരമായി കേട്ട് കൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുമ്പം തന്നെ നമുക്ക് ആ ഈ ഇന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പം ഇന്ന ഇതിലുള്ള സ്ട്രെങ്ങ്ത്തിലുള്ള റേഡിയോ കിട്ടും അപ്പോൾ നമ്മളത് കേട്ടു കൊണ്ടിരിക്കുക റേഡിയോയിൽ തന്നെ പിന്നെ നമുക്ക് പാട്ട് നമ്മൾ നമുക്ക് തന്നെ റേഡിയോ ഉള്ളിൽ സംസാരിക്കാനുള്ള ഒ ഓപ്ഷനൊക്കെ ഉണ്ട് നമുക്ക് റേഡിയോയില് തന്നെ ആ എഫ് എം വഴി നമുക്ക് സംസാരിക്കാം സംസാരിക്കുമ്പോൾ തന്നെ നമ്മള്ക്ക് അതിനെ പറ്റിയുള്ള ഇത് കിട്ടും പിന്നെ റേഡിയോയെന്നൊക്കെ പറയുമ്പോൾ അത് എപ്പോഴും ആ റേഡിയോയെന്നൊക്കെ പറഞ്ഞാല് നല്ലതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് റേഡിയോയിൽ കിട്ടും എപ്പോഴും നമുക്ക് റേഡിയോ ഫിസിക്കല് മാത്രമല്ല നമുക്ക് ഇന്സ്റ്റാള്ഡുമാണ് ഫോണിലൊക്കെ